ഉൾനാടുകളിൽ ജീവിക്കുന്നവർ നഗരപ്രദേശങ്ങളിലുള്ളവരെപ്പോലെ അത്ര വലിയ സാക്ഷരതയും അറിവുകളൊന്നും ഉള്ളവർ ആകണമെന്നില്ല അവർക്ക് കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലറിവുള്ളത് അവരുടെ മക്കളായിക്കോട്ടെ നാട്ടിലുള്ള കളികളിലൂടെ കളിച്ചും കായികമായിട്ടും ശാരീരികമായിട്ടുമുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഗുണമെന്ന് വച്ചാൽ ഇന്ത്യൻ ആർമി പോലീസ് അതുപോലെയുള്ള ജോലികളിൽ കായിക ക്ഷമത പരീക്ഷണം നടക്കുമല്ലോ അപ്പോൾ അതിൽ നഗരങ്ങളിലുള്ളവരുടെ കുട്ടികളേക്കാളും മികച്ച രീതിയിൽ കായിക ക്ഷമത തെളിയിക്കാൻ ഈ ഉൾനാടുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് കഴിയുമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്